ഹലോ അതെ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കല്ല്യാണം ഉണ്ടാവുന്നത് മണ്ഡപത്തിൽ നിന്നാണോ അതോ നിങ്ങളെ വീട്ടിൽ നിന്നാണോ ഓ ഓക്കേ ഓക്കേ ആ കസിൻ്റെത് പേര് എന്തായിരുന്നു കസിൻ്റെ ആ ഓക്കെ ഓക്കെ ആ അന്ന് അവിടുത്തെ എല്ലാ പരിപാടിയും ഞങ്ങൾ തന്നെയാണ് ചെയ്ത് ഉണ്ടായത് അതേപോലത്തന്നെ നിങ്ങളുടെ ഹൽദിയും കല്ല്യാണവും ഒക്കെ ഞങ്ങളെതന്നെ ആണോ ചെയ്യേണ്ടത് ഓ ഹോ ഹോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെഡ്ഡിംഗ് ഡ്രസ്സിൻ്റെ എന്തെങ്കിലും കളറോ എന്തെങ്കിലും ഉണ്ടോ ലൈറ്റ് റോസ് ആണോ വരന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഓ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മണ്ഡപമൊക്കെ അതുപോലെ നമുക്ക് നല്ല റോസ് ഫ്ലവറിനെ കൊണ്ടോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ മൊട്ടു പോലെ ഇല്ലേ അതൊക്കെ വച്ചിട്ട് മണ്ഡപം അലങ്കരിച്ചാലോ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പന്തൽ നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാരെക്കൊണ്ടല്ലേ ചെയ്യിക്കുന്നുണ്ടാവുക ഓ നമ്മൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട് പന്തലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പക്ഷെ പന്തലിൻ്റെ ഒക്കെ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടും കേട്ടോ ശരി അപ്പോൾ പന്തലിൻ്റെതും ഞാൻ എല്ലാം കൂടി നോക്കിയിട്ട് വാട്ട്സ്ആപ്പിൽ ഇട്ടുതരാം പിന്നെ ആണെങ്കിൽ വെഡ്ഡിംഗ് ഡ്രസ്സ് നിങ്ങൾക്ക് സാരി ആയിരിക്കുമല്ലോ അല്ലേ എന്തായാലും വേണ്ടത് ശരി ഹൽദിക്ക് ഉള്ള ആൾക്കാർ നിങ്ങൾ പക്ഷെ നിങ്ങളുടെ കുടുംബക്കാർ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാകുമല്ലോ എന്തായാലും ഹൽദിക്ക് അവരെ അടുത്ത് ഒക്കെ എന്നാൽ യെലോ കളറ് ഡ്രസ്സ് ഇടാൻ പറയണം നമ്മൾക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക അതെ അതെ ട്വൻ്റി സിക്സ്ത്ത് അല്ലേ ട്വൻ്റി ഫിഫ്ത്തും ട്വൻ്റി സിക്സ്ത്തും അല്ലേ അപ്പോൾ വരുന്നത് കുഴപ്പമില്ല തീർച്ച ആയിട്ടും നമ്മൾ മുന്നേ ചെയ്തിട്ട് ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചുതരാം പക്ഷെ അതുപോലത്തെ കളറ് അത് അത് സെയിം സാധനം തന്നെ വേണം എന്ന് പറയുന്നത് നല്ലത് ആയിരിക്കുമല്ലോ നമ്മൾക്ക് കുറച്ച് ഒരു മാറ്റത്തിൽ ചെയ്യാം മോഡൽ ഏതാണ്ട് അതുപോലെ ആയിരിക്കും അത്രയേ ഉള്ളൂ സ്റ്റിച്ചിംഗ് ഒക്കെ വ്യത്യാസം ആയിരിക്കും ഡിസൈന് വേറെ ആയിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ ഓരോ ബ്രൈഡിനും അതെ അതെ അതെ കാരണം പല പല മോഡൽ ഇപ്പോൾ ചെയ്യുന്നില്ലേ ഇപ്പം യൂട്യുബിലും അങ്ങനെ ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ ഫേസ്ബുക്കിൽ ഒക്കെ ഓരോ ആൾക്കാരുടെ പക്ഷേ അതിലും എല്ലാത്തിലും നിന്ന് ഒരു വെറൈറ്റി ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ശരി അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യം ആണെങ്കിൽ നിങ്ങൾക്ക് ഹൽദി ഉള്ള ദിവസം നോൺവെജ് ഒക്കെ പറ്റുമല്ലോ അല്ലേ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇല ഒരു ഇലക്കെന്ന് ഉള്ളതിൽ റേറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ വെഡ്ഡിംഗിന് ഏകദേശം ഇത്ര ആൾ പങ്കെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് അനുസരിച്ചിട്ട് ഒരു ഒര് എമൗണ്ട് പറയും അപ്പോൾ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ആക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇലയുടെ കണക്ക് വച്ചിട്ട് ആക്കാം ഓക്കെ ആ നിങ്ങൾ ഓർണമെൻ്റ്സ് ഒക്കെ വാങ്ങിച്ചോ ഓക്കെ അതിപ്പോൾ ഈ ലേറ്റസ്റ്റ് സ്റ്റൈൽ ആണ് ടെമ്പിൾ ഡിസൈൻസ് ആണോ അല്ലെ നോർമൽ ഓർണമെൻ്റ്സ് ആണോ വാങ്ങിക്കുന്നതെന്ന് ഉള്ളതുംകൂടി ഒന്ന് പറഞ്ഞുതരണം എന്നാൽ മാത്രം നമ്മൾക്ക് അതിന് അനുസരിച്ചിട്ട് ആണ് നമ്മൾ സാരി ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുതന്നെ വേണം എന്ന് അർത്ഥം ഡ്രസ്സ് ആയാലും ശരി അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മോഡൽസ് ഒക്കെ ഞാൻ ഷൈനക്ക് അയച്ചു തരാം എന്നിട്ട് പറയുമോ അതിന് ശേഷം നമ്മൾക്ക് തീരുമാനിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നതായിരിക്കും നല്ല ഒരു ഹാപ്പി ബ്രൈഡ് ആവാൻ ആ സാധിക്കട്ടേന്ന് ആശംസിക്കുന്നു ശരി ഷൈന ഹാവ് എ ഗുഡ് ഡേ